ഹലോ കേൾക്കാമോ ആ പറഞ്ഞോ മാഡം അത് ഞാൻ ഞാൻ കുക്ക് ചെയ്തായിരുന്നല്ലോ നല്ല ഫുഡ് ആല്ലായിരുന്നോ മാം ഇന്ന് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാനാണ് പറഞ്ഞത് മാഡം മാം അതെല്ലാം മാം പറഞ്ഞത് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് എരിവെല്ലാം കുറച്ച് നല്ല ഇതായിട്ടാണ് ഉണ്ടാക്കിയത് ആ അതെ സാ സോറി മാം കൂടുതലാണെങ്കിൽ അത് ക്ഷമിക്ക് സോറി ഉച്ചയ്ക്ക് സാദാ ഊണ് റെഡി ആക്കിയിട്ടുണ്ട് ഊണ് ഫിഷ് കറി ഉണ്ട് പച്ചക്കറി ഒക്കെ ഉണ്ട് ഇല്ല ഇല്ല ഇല്ല ഇല്ല മാം മുളകൊന്നും കൂടുതൽ ഇല്ല കറക്റ്റ് ആയിട്ടാണ് എല്ലാം ഇട്ടിരിക്കുന്നത് ഓക്കെ മാം ഞാൻ അങ്ങനെയേ കൊടുക്കുള്ളൂ അത് വെജിറ്റബൾ ഉണ്ട് വെജിറ്റബൾ നമ്മുടെ തോരനും മോരും എല്ലാം ഇരിപ്പുണ്ട് ആ മെഴുക്കുപുരട്ടി ഉണ്ട് മ പയർ മെഴുക്കുപുരട്ടി ഉണ്ട് പിന്നെ കാബേജ് തോരൻ ഉണ്ട് മോര് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് കറി ഫിഷ് ഫ്രൈ ഉണ്ട് കൊടുക്കത്തില്ല മാം ആ അതെ അതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത് ആ അതെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം മാറ്റി മാറ്റി എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോറി മാം ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ഇനി ഒരിക്കലും അങ്ങനെ വരത്തില്ല സോറി സോറി ശരി മാം ഇനി ശ്രദ്ധിച്ചോളാം ഞാൻ ഇനി അങ്ങനെയേ ചെയ്യുള്ളൂ ഞാൻ രണ്ടും രണ്ട് രീതിയിൽ തന്നെ ചെയ്ത് വെച്ചേക്കാം അത് മാം പറഞ്ഞാൽ മതി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് തരാം അവർക്ക് ഞാൻ കഞ്ഞിയും പയറും വെച്ചിട്ടുണ്ട്